ആരാണ് അതേ അല്ലോ പേരൊന്ന് പറയാമോ അതെയോ ഏത് മീനാണ് ഓഡറ് കൊടുത്തിരുന്നതെന്ന് പറയാമോ ഏത് മീനാണ് ഓഡറ് കൊടുത്തിരുന്നതെന്ന് പറയാമോ

ആ ഓക്കെ ആ ആ ആ തരാമല്ലോ എപ്പോഴത്തേക്കായിരുന്നു വേണ്ടത് ഓക്കെ ഓക്കെ ഓക്കെ ആ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വേറെ മീനും ഉണ്ടായിരുന്നു വേറേ ഏതെങ്കിലും മീൻ വേണോ മേഡത്തിന് ഏ ഏതൊക്കെയാണ് മീൻ ഉള്ളത്

ഓക്കെ ഓക്കെ ഓക്കെ എ ആ ഓക്കെ പ്രോണും ക്രാബും സാൽമണുവല്ലെ വേറെ എന്തെങ്കിലും വേണോ ഫിഷ് നമുക്ക് കേരയുണ്ട് നമുക്ക് അയലയുണ്ട്

ആ പുതിയതായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഓലക്കുടിയൻ വന്നിട്ടുണ്ട് അത് പീസായിട്ടുള്ള മീനാണ് വലിയ ഫിഷാണ് ചെറിയ മീൻ നമുക്ക് കൊഴുവയുണ്ട് മത്തി അങ്ങനത്തെ കിളിമീൻ അങ്ങനെയൊക്കെ ഉണ്ട് ഏതെങ്കിലും വേണോ മേഡത്തിന് ആ ഓക്കെ എല്ലാം ഒരു കിലോ വച്ചിട്ടാണോ അതെ ക്ലീൻ ചെയ്തു തരണം അല്ലെ ആ ഓക്കെ ഓക്കെ വൈകിട്ടത്തേക്ക് എടുത്ത് വച്ചേക്കാം അപ്പം വൈകിട്ട് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണോ അതോ ഞങ്ങൾ ഹോം ഡെലിവറി ഉണ്ടായിരുന്നു അത് ചെയ്യണോ ഓക്കെ ഓക്കെ ശരി ശരി ആ ഓക്കെ അപ്പം പ്രൈസ് എന്തെങ്കിലും അറിയാൻ ഉണ്ടായിരുന്നോ വില എത്ര ഓക്കെ ക്യൂ സാൽമണും പ്രോണും ക്രാബിനും കൂടെ ത്രീ തൗസൻ സിക്സ് ഹൻഡ്രഡ് ആവും ആ മത്തിയ്ക്കും പിന്നെ എന്തായിരുന്നു വേണ്ടിയിരുന്നത് ഒഴ്ക മത്തിയ്ക്കും ഒഴുവയ്ക്കും കൂടെ ഒരു തൗസൻഡ് ടൂ ഹൻഡ്രഡ് ആവും ഓക്കെ ശരി താങ്ക് യു